പഴയ തലമുറ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് അവരുടെ കുട്ടികൾ അങ്ങനെ ഒരു ലോകത്തിലാണ് താമസിക്കുന്നത് ജീവിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടിയെടുത്ത് കറങ്ങി നടക്കുക മദ്യപിക്കുക മറ്റേ ലഹരിവസ്തുക്കളിൽ അഭയം തേടുക അങ്ങനത്തെ ആൾക്കാർ ആണ് ഇപ്പോൾ ഉള്ളത് അതായത് ഇപ്പോഴത്തെ തലമുറ ന്യൂ ജനറേഷൻസ് എന്നാണ് അവരെ നാട്ടുകാരും ബാക്കിയുള്ള ആൾക്കാരും എല്ലാം വിശേഷിപ്പിക്കുന്നത് പിന്നെ പഴയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കൂലി പണിയും കൂടുതലും കൂലിപണിയിലാണ് ഉള്ളത് അതായത് കൂലിപ്പണി എടുത്ത് അവരുടെ ജീവിതം എന്താണ് അന്നന്നേരത്തേക്ക് അ പൈസ കണ്ടെത്താനാണ് അവർക്ക് ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈസ കിട്ടി കഴിഞ്ഞാലും ബൈക്കെടുത്ത് കറങ്ങുക ലഹരിവസ്തുക്കൾ വാങ്ങുക ഇങ്ങനത്തെയൊക്കെയാണ് അവരുടെ ഒരു രീതി അപ്പോൾ ഇവ രണ്ടിലും രണ്ടുപേരിലും നല്ല വ്യത്യാസമുണ്ട് ഇവർ രണ്ടുപേരും വേറൊരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് മെയിൻ ആയിട്ട് ഇവർ ഇങ്ങനത്തെ പരിപാടികളാണ് ചെയ്യുന്നത്